ഹലോ പറയൂ അതെ അതെ അതെ അതെ മലപ്പുറത്ത് സ്ഥലത്തിനൊക്കെ പല റേറ്റിലും ഉണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം എങ്ങനെ എങ്ങനത്തെ സ്ഥലങ്ങൾ ആണ് നോക്കുന്നത് ആ വീട് വയ്ക്കാൻ ആണെന്ന് ഉണ്ടെങ്കിൽ പള്ളി അതേമാതിരി മദ്രസ അങ്ങനത്തെ ഒക്കെ ഏരിയകൾ വേണം അല്ലേ ഇവിടെ അടുത്തുള്ളത് മലപ്പുറത്ത് ഉണ്ട് ഇവിടെ സ്ഥലം ഉണ്ട് അതായത് വെള്ളം ഒക്കെ ഉണ്ട് വെള്ളം ഒന്നും കുഴപ്പമില്ല വെള്ളം ഇപ്പോൾ വേനൽക്കാലം അല്ലേ വെള്ളം കുഴപ്പം ഒന്നും ഇല്ല പിന്നെ നമ്മൾ വള്ളത്തിൻ്റെ ഒക്കെ കാര്യമെന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചുകൊടുക്കേണ്ടതാണ് പോയാൽ അടിക്കേണ്ടി വരും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകും വെള്ളം ഒക്കെ ഉണ്ട് വെള്ളം ഒന്നും കുഴപ്പമില്ല അങ്ങത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ സ്ഥലത്തിന് ഒരു ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യും അതേമാതിരി പള്ളി അതേമാതിരി മദ്രസ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ വരും അത്രെയും ഒക്കെ വരും ഒരു സെന്റിന് റോഡ് സൈഡിൽ തന്നെ റോഡ് സൈഡ് ആണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡ് പത്തടി വഴിയുണ്ടാകും അ ലോറി പോകും വണ്ടികളൊക്കെ പോകും വാഹനങ്ങളൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലം മെയിൻ റൂട്ടിലൊന്നും ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു വീട് കെട്ടാനുള്ള സ്ഥലം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം രൂപ ആ ലെവലിൽ ഒക്കെ ഇപ്പം കിട്ടുകയുള്ളു രണ്ടര ലക്ഷം രൂപ ആ മെയിൻ റോഡിൽ നിന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ അങ്ങ് പോയിട്ട് അതായത് വണ്ടിയും വാഹനവും ഒക്കെ പോകും ആ കാരണം മുന്നൂറ് മീറ്റർ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ റോഡ് സൈഡിൽ കയറിയാൽ പള്ളി മദ്രസ ഒക്കെ ഉണ്ട് ആ അപ്പം പ്രശ്നം ഇല്ല അപ്പം അങ്ങനെ ആയിക്കോട്ടെ അത് വിളിക്ക് താങ്ക്യൂ